എൻ്റെ ഗ്രാമത്തിലെ എല്ലാവർക്കും അവരുടേതായ ഉപയോഗിക്കാനുള്ള കിണറുകൾ ഉണ്ട് അല്ലാതെ കിണറില്ലാത്തവർക്ക് ആയിട്ട് ഒരു പൊതു കിണർ അല്ലെങ്കിൽ പഞ്ചായത്ത് കിണറുണ്ട് ആ കിണറിൽ നിന്ന് എല്ലാവരും അവർക്ക് കുടിക്കാനുള്ളതായാലും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള എല്ലാ വെള്ളവും അവരവിടുന്ന് ശേഖരിക്കാറുണ്ട് ചിലപ്പോൾ മോട്ടോർ പമ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടികളിൽ കൊണ്ട് വലിയ ടാങ്കുകൾ വെച്ച് അതിൽ വെള്ളം നിറച്ചു കൊണ്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ടു വരാ വേനൽ കാലത്ത് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും പ്രധാ അഭിമുഖീകരിക്കുന്ന ഒരു പ്രത്യേ പ്രധാന പ്രശ്നം എന്താന്ന് വച്ചാൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ് ആ സമയത്ത് എൻ്റെ നാടിൻ്റെ ഒരു ക പുഴ അടുത്ത് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പിന്നെ ആശ്രയിക്കുന്നത് പുഴയെയാണ് കുഴൽ കിണർ കുത്തിയിട്ട് എൻ്റെ വീട്ടിലടക്കമുള്ളവർ കുഴൽ കിണർ കുത്തിയിട്ട് വെള്ളം കാണാത്ത വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു അത്രയും മുതൽ മുടക്കിയിട്ട് ഞങ്ങൾക്ക് വെള്ളം ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും അവിടെ അധികം കുഴൽ കിണർ ഉപയോഗിക്കാറില്ല എല്ലാവരും ഒരു പഞ്ചായത്ത് കിണറിനേയോ അല്ലെങ്കിൽ അടുത്തുള്ള പുഴയേയോ ആണ് ആശ്രയിക്കാറുള്ളത്